നമ്മുടെ സമീപത്തെ ഏതെങ്കിലും പിന്നെ ആർട്ട്സ് സപ്ലൈസ് സ്റ്റോറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് അതായത് സ്റ്റേഷനറി സാധനങ്ങൾ അതായത് നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഉണ്ട് നമുക്ക് ആർട് ആർട് സപ്ലൈ സ്റ്റോറുകളൊക്കെ അതായത് ആർട്ട്സ് സപ്ലൈസ് പിന്നെ സാ സാധങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ബുക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ അവിടെ നിന്നാണ് മേടിക്കുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വള മാല കമ്മൽ പൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ പിന്നെ നമുക്ക് അതായത് ബുക്ക് മാത്രമല്ലാണ്ട് നമുക്ക് ചാർട്ട് പേപ്പർ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാകുമല്ലോ പിന്നെ വൗച്ചർ അതേപോലെ ഇപ്പോൾ കുടുംബശ്രീൻ്റെ മാസ്ട്രോൾ അങ്ങനെയുള്ള പല പല സാധനങ്ങൾ ഇപ്പോൾ കുടുംബശ്രീൻ്റെ മാസ്ട്രോൾ അത്പോലെത്തന്നെ ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ മാസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റേഷനറി ഷോ റൂം എന്ന് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ മേടിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ നമ്മൾ ഇങ്ങനത്തെ സാ അതായത് നമ്മൾ സ്കൂളൊക്കെ പൂട്ടുമ്പോൾ കുട്ടികൾക്ക് മേടിക്കുന്നതൊക്കെ സ്റ്റേഷനറി ഷോപ്പിൽ നിന്നു തന്നെയാണ് നമ്മൾ ബുക്ക് കാര്യങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പെൻസിൽ പേന റബ്ബർ കട്ടർ പിന്നെ ബോക്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് തന്നെയാണ് മേടിക്കുന്നത് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ക കരകൗശല വസ്തുക്കൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൺപാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൺപാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തന്നെ പ്രത്യേകം ഒരു ടേസ്റ്റ് തന്നെയാണ്